ഹലോ ആ ഇത് ലീലേച്ചിയല്ലേ വീടെല്ലാം കെട്ടി കൊടുക്കുന്ന കോൺട്രാക്ടറ് ആ ലീലേച്ചി ഞാനിത് എൻ്റെ പേര് മോഹിനി എന്നാണ് പിന്നെ എൻ്റെ വീട്ടിൻ്റടുത്തുള്ള പിന്നെ റീന എന്ന് പറയുന്ന അവരാണ് നിങ്ങളെ നമ്പറ് തന്നത് എനിക്ക് ആ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ മുകളിൽ പിന്നെ ഒരു ഹോള് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് രണ്ട് ബെഡ്റൂമും കൂടി എടുക്കണം എന്ന് വിചാരിക്കുന്നു മക്കളൊക്കെ വലുതാ യി വരുവാണ് സ്ഥലമൊന്നും ആ സ്ഥലമൊന്നും മതി ആവുന്നില്ല അപ്പോൾ അവർക്ക് ഒരു റീഡിങ്ങ് റൂമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് റൂമും കൂടി കൂട്ടി എടുക്കണം എന്നുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് പിന്നെ അതിന് എത്ര ഒരു എസ്റ്റിമേറ്റ് എനിക്ക് പറഞ്ഞ് തരുവാൻ പറ്റുമോ എത്രയാകും എന്നുള്ളത്

മാരേൻ്റെ കാര്യങ്ങളെല്ലം അല്ലേ ആ ആയിക്കോട്ടെ എന്നാലും ഒരു ഏകദേശം കണക്ക് പറയാൻ പറ്റൂന്നുണ്ടായിനെങ്കിൽ നല്ലതായിരുന്നു പിന്നെ പിന്നെ നോക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നോക്കാൻ നിങ്ങൾക്ക് വരാം എൻ്റെ വീട്ടിലേക്ക് ഞാൻ വഴി പറഞ്ഞ് തരാം ലൊക്കേഷൻ ഇട്ട് തരാം ഏ അപ്പോൾ നിങ്ങൾ ഒന്ന് വന്നിട്ട് വരുമ്പോൾ അപ്പോഴാണെങ്കിൽ ആശാരിനെ വേണമെങ്കിൽ കൂട്ടിക്കോളൂ അപ്പം അവർ മരത്തിൻ്റെ എത്രയാണ് വേറെ തന്നെ പറയുമല്ലോ

ആ അതെ അതെ ആ ആ ഒരു രണ്ട് റൂമ് വേണം അപ്പോൾ ഏകദേശം ഇപ്പം കൂലിൻ്റെ ഏകദേശം ഒരു എത്ര റേറ്റ് സിമൻ്റ് എത്ര വേണ്ടി വരും അങ്ങനെ എല്ലാം പറഞ്ഞൊണ്ടെങ്കില് ആ പിന്നെ അവർ ആശാരി കൂടെ തന്നെ ആശാരിയും കൂടി വന്ന് ഉണ്ടായെങ്കിൽ അപ്പം അവർ മരത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞ് മരമൊക്കെ ആണെങ്കിൽ വാങ്ങാം നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞാൽ നമ്മളെ പറമ്പിൽ ഉണ്ട് നമ്മൾ മുറിച്ചാൽ മതിയല്ലോ നല്ല മൂത്ത പ്ലാവുണ്ട് ആ ആ അപ്പോൾ ആ

അപ്പോൾ എപ്പം വരാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും വരാൻ ഞായറാഴ്ചയോ ഞായറാഴ്ചയോ അപ്പം ഞായറാഴ്ച വരുവാണെങ്കിൽ എനിക്ക് രാവിലെ ഒരു പരിപാടിക്ക് പോവാനുണ്ട് അപ്പോൾ നിങ്ങൾ ഉച്ചക്ക് ശേഷം ഒരു മൂന്ന് ഒരു നാല് മണിയാകുമ്പോൾ വരുമോ ആ അപ്പം അപ്പം ഞാൻ ഞാനിപ്പം തന്നെ ലൊക്കേഷൻ അയക്കാം കേട്ടോ അപ്പോൾ ഒന്നും മറക്കാണ്ട് വരണേ ശരി ശരി ഓ ഓ ഓ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു